കയറ്റുമതി ഇറക്കുമതിയിൽ ഏറ്റവും അത്യാവശ്യം മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെ ആണ് കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതിൽ സ്പൈസസാണ് ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്നത് കേരളത്തിൽ നിന്നാണ് പ്രത്യേകം അതായത് ഇപ്പോൾ കുരുമുളക് ഏലം അങ്ങനെ ഉള്ള സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റിങ്ങ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മത്സ്യ കൃഷി പിന്നെ അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി പോവുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും തൊഴിൽ വിപണിയിൽ ആയാലും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള കൃഷി നശിക്കലും കാര്യങ്ങളുമൊക്കെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ച്ചറിനെ ഇതാക്കാറുണ്ട് പ്രതിപാതിക്കാറുണ്ട് അത്പോലെ തന്നെ ലെ നമ്മുടെ അപ്പോൾ അതുമൂലം കർഷകൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊന്നും അവർക്ക് ലഭിക്കാത്ത ലഭിക്കാത്ത ധനസഹായം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ലഭിക്കാതാവുകയും അവ അവരുടെ ജീവൻ തന്നെ ഒരു ഇതാവുകയും ചെയ്യുന്നു കാരണം അവർക്ക് അവർ കഷ്ട്ടപ്പെടുന്നതിലുള്ള പ്രോഫിറ്റ് അവർക്ക് തിരിച്ച് കിട്ടാതാകുമ്പോൾ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന കാലാവസ്ഥ തന്നെയാണ് അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് കാരണം കാലം തെറ്റി പെയ്യുന്ന മഴ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൃഷി കാര്യങ്ങളിലൊക്കെ ഒരുപാട് എടുക്കുക എടുക്കുന്നുണ്ട് കൊടും ചൂട് ചൂടിനെ താങ്ങാൻ പറ്റാതെ വരിക അതുപോലെ തന്നെ കൃഷി നശിക്കുക വെള്ളം കിട്ടാതെ വരിക ഇതൊക്കെ കൃഷി